അമ്പലങ്ങളിലെന്നു വെച്ചാൽ ഭജന ഒന്നാമത് ഭജന എടുത്തുപറയാം ഇപ്പോൾ ഞാൻ ശബരിമലയിൽ പോകുന്ന ആളുകൾ മാലയിട്ട ആൾകാൾ അവർ എന്താ ഭജനയെന്നു പറഞ്ഞൊരു സംഭവമുണ്ട് അവർക്ക് ഭജന ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് അവർക്ക് ഫീൽ എന്താ തോന്നുന്നത് അപ്പോൾ അവർ എല്ലാവരും കൂട്ടായ്മയിലൂടെ ഭജന നടത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഭജന അത് വളരെ മനോഹരമാണ് പിന്നേയെന്നു വെച്ചാൽ ഉത്സവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അത് എന്നു വെച്ചാൽ അത് ഓരോ പല തരത്തിലുള്ള ദൈവങ്ങളുണ്ട് ആ ഒരു ദൈവങ്ങളെന്നു വെച്ചാൽ അവർക്കതിൻ്റെ അവരുടേതായ കഥകളുണ്ട് ആ കഥകളനുസരിച്ച് അവരത് മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെയാണ് ദൈവമായി മാറിയത് എന്ന് അവതരിപ്പിക്കുന്നൊരു ഇതാണ് തറയെന്നു പറയുന്നത് പിന്നെയെന്നു വെച്ചാൽ മുത്തപ്പൻ വെള്ളാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ആരാ പിന്നെ അമ്പലങ്ങളിൽ പിന്നെയെന്നു വെച്ചാൽ ക്രിസ്ത്യൻസിൻ്റെ എന്നുവെച്ചാൽ അവർക്ക് അപ്പോൾ അവരുടെ പള്ളികളിൽ ക്രിസ്ത്യൻ പള്ളികളിൽ അവർക്ക് ഞായറാഴ്ച ഒരു കുർബാനയുണ്ട് ആ കുർബാനയെന്നു വെച്ചാൽ എല്ലാവരും കൂടിച്ചേർന്ന ഒരു കുറുബാനയാണ് ഞായറഴ്ചകളിൽ അവർക്ക് പള്ളികളിൽ എന്തായാലും പോയി കുറുബാന ചെയ്യണം അതായത് ഒരു വളരെ മനോഹരമായ കാര്യമാണ് പിന്നേയെന്നു വെച്ചാൽ നടക്കുന്നത് ക്രിസ്ത്യൻ പള്ളികളിലതാണെങ്കിൽ മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം എല്ലാ പുരുഷന്മാരും പള്ളികളിൽ പോയി നിസ്കരിക്കുന്ന ഒരു സംവിധാനം കണ്ടു വരുന്നുണ്ട് അത് എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് അത് വളരെ എന്താ അവർ അവരാഘോഷിക്കപ്പെടുന്ന പരിപാടിയാണ് എല്ലാവരും ഒപ്പരം കൂടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചെയ്യുന്ന ഒരിത് പിന്നേയെന്നു വെച്ചാൽ പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇതിനാണെങ്കിൽ ക്രിസ്തുമസ് ദുഃഖ വെള്ളി എന്നിങ്ങനെ ഒരുപാട് ആഘോഷ പരിപാടികൾ നടക്കാറുണ്ട് അതേപോലെ മുസ്ലിംസിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള അയ്യോ ഒരുപാട് എന്താ പറയുക ഈദ് അങ്ങനെയുള്ള സംഭവങ്ങൾ നടത്താറുണ്ട് ആഘോഷങ്ങൾ